ഇന്നത്തെ സമൂഹത്തിലെന്നു വെച്ചു കഴിഞ്ഞാൽ ഗ്രാമീണ കൃഷിയുടെ പ്രാപ്തരായ തൊഴിലാളികളെ കണ്ടെത്താനും നിലനിർത്താനുള്ള അവരെ എന്താ കണ്ടെത്തി നിലനിർത്താനുള്ള ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം സത്യസന്ധമായ പണിക്കാർ വേറെ വേറെ ഉണ്ടാവത്തില്ല അതായത് എന്തൊക്കെ പറഞ്ഞാല് ഇപ്പം തന്നെ ഒത്തിരി കൃഷിക്കാരെയൊന്ന് എന്തെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം കൂടുതലും എന്തെ എല്ലാ കാര്യങ്ങളും മഷീൻ എന്താ ഇലക്ട്രോണിക് പരമായും സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയതു കൊണ്ടായിരിക്കും നമുക്കെന്താ ഒത്തിരിയധികം കൃഷിക്കാരെയൊന്നും കാണാമെന്നൊക്കെ പറ്റുന്നില്ല പിന്നെ ഇന്നത്തെ കാലത്ത് ദിവസക്കൂലി എന്നു വെച്ചു കഴിഞ്ഞാൽ ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന അഞ്ഞൂറ് രൂപയാണ് അത് സ്ത്രീകൾക്കഞ്ഞൂറും പുരുഷന്മാർക്ക് പുരുഷന്മാർക്ക് എഴുന്നൂറും പിന്നെ മരംവെട്ടുകാർക്ക് ആയിരത്തി ആയിരത്തി ഒരുന്നൂറ് പിന്നെ മേസ്തിരികൾക്ക് ആയിരത്തി അഞ്ഞൂറ് അങ്ങനെ ഒത്തിരി ഒത്തിരി നമ്മുടെ സമൂഹത്തിൽ തന്നെ കൃഷിക്കാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നാണം വരും എന്താ ഇപ്പം തന്നെ എല്ലാവരും ഒത്തിരി സർക്കാർ ഉദ്യോഗസ്ഥരും പിന്നെന്താ കൂലിപ്പണി അതായത് കൃഷിപ്പണി വേണ്ടെന്നു വെച്ചും കൃഷി നമ്മുടെ സമൂഹത്തിൽ വളരെ തന്നെ കുറഞ്ഞിരിക്കുകയാണ് അപ്പം എല്ലാവരും തന്നെ കൃഷീനെ മാറ്റി നിർത്താതെ മാറ്റി നിർത്തിയിട്ട് പുതിയ പുതിയ ഗവൺമെൻറ്റ് ജോലിയാണെങ്കിലും എന്താ ഒത്തിരി പുതിയ പുതിയ ടെക്നോളജിപരമായ ബന്ധങ്ങളിലേക്ക് ഏർപ്പെടുന്നത് കൊണ്ടു തന്നെ എല്ലാവർക്കും കൃഷിയോട് ഒരിത് എന്നാൽ വെറുപ്പോടായ അങ്ങനെ എല്ലാവരും കൃഷി ഇതായിട്ട് കാണുന്നു പിന്നെ പിന്നെന്താ നമ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു സാധനമാണ് കൃഷി അപ്പം അതിനു പറ്റിയ ആൾക്കാരെ കണ്ടെത്തുക അവന് അങ്ങനെ കണ്ടെത്തുക പിന്നെ സത്യസന്ധമായ പണിക്കാർ അതൊന്നും ഇന്നത്തെ സമൂഹത്ത് നമുക്ക് കിട്ടാനേ ഇല്ല ആർക്കും തന്നെ ഇപ്പം കൃഷിപ്പണിയോട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ പക്ഷേ ഏറ്റവും മികച്ചൊരു മെച്ചപ്പെട്ടൊരു കാര്യം തന്നെയാണ് കൃഷിയെന്നു വെച്ചു കഴിഞ്ഞാൽ കൃഷി കൃഷിപ്പണിയിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ നമ്മുടെ സമൂഹത്തിൽ നില നിർത്താൻ കഴിയും എല്ലാം നമുക്ക് ജീവി ഒരു ഉപജീവിതന ഉപജീവന മാർഗ്ഗം തന്നെയാണ് കൃഷിയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് നിലനിർത്തിക്കൊണ്ട് വരിക പിന്നെ എന്താ പറയുക കൃഷിയെ കളയാതെ നോക്കുക പിന്നെ ഇന്നത്തെ ഇന്നത്തെ സമൂഹത്തിലെ ജനങ്ങൾക്ക് സർക്കാർ ജോലിയെക്കാട്ടിയും ഇപ്പം ഏറ്റും കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് കൃഷിപ്പണി അതായത് സർക്കാർ ജോലിക്കാരൻ ഒരു പത്ത് മാസം ഒരു മാസം സമ്പാദിക്കുന്ന പൈസയായിരിക്കും ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു കൃഷിപ്പണിക്കാരൻ രണ്ടാഴ്ച കൊണ്ട് അല്ലെങ്കിൽ മൂന്നാഴ്ച കൊണ്ട് ഉണ്ടാക്കി എടുക്കുന്നത് പിന്നെ ഏറ്റവും വല് സർക്കാർ ജോലി സർക്കാർ ജോലിയാണെങ്കിൽ ടെക്നോളജി പരമായിട്ട് എല്ലാവരും വളർന്നു കൊണ്ട് ഇരിക്കുന്നത് കൊണ്ടു തന്നെയായിരിക്കും എന്താ ആർക്കും ആരോടും തന്നെ എന്താ കൃഷിയോടുള്ളൊരു ഇടപെടലും ബന്ധം ബന്ധമൊക്കെ കുറഞ്ഞിരിക്കുകയാണ് പിന്നെ അത്ര നല്ല അവർ കൂടെക്കൂട്ടുകയെന്നു വെച്ചു കഴിഞ്ഞാൽ എന്താ ഇപ്പം ഇന്നത്തെ ഒരു കൃഷിക്കാർക്കാണെങ്കിൽ ഇപ്പം വീട്ടിൽ പണിയാൻ വരുന്ന ഒരാളാണെങ്കിൽ നമ്മളയാൾക്ക് ഫുഡ് ചിലവിന് അതായ ഫുഡ്ഡും പിന്നെ ചായക്ക് ചായ പിന്നെ വെള്ളം പിന്നെ അഞ്ഞൂറ് രൂപ കൂലി ഇതൊക്കെ നമ്മൾ കൊടുക്കണം എന്നാലേ ഒരു ഒരാൾ നമ്മുടെ കുടു വീട്ടിൽ വന്ന് എന്തെങ്കിലൊക്കെ പണി ചെയ്യത്തുള്ളു അപ്പം അപ്പോൾ അവർ തന്നെ അത്രയും ഇതായിട്ട് നിൽക്കുമ്പോൾ അവർക്കു തന്നെ താല്പര്യമില്ല കൃഷിപ്പണിയോട് ഏർപ്പെടാനും കൃഷി ചെയ്യാനും അപ്പോൾ ഒത്തിരി കൃഷി ചെയ്യുന്നൊരു ഒത്തിരി വെല്ലുവിളികളും അതായത് അവർ താല്പര്യം എല്ലാവർക്കും തന്നെ കൃഷിയോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ നമ്മൾ തന്നെ എല്ലാം സമൂഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയും കൃഷിയെ എല്ലാവരും അടിച്ചമർത്തുക അങ്ങനത്തുള്ള ഒരു പരിപാടി ആർക്കും തന്നെ ഇപ്പം അതിനോട് വലിയ താല്പര്യമില്ലാത്തൊരു ഇതിലാണ് ഇപ്പോൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും വലിയ ഇതിൽ ടെക്നോളജി പരമായിട്ട് വളർത്തുന്നതു കൊണ്ടൊക്കെ ആയിരിക്കാം ആർക്കും കൃഷിയോട് വലിയ താല്പര്യമില്ലാത്തത് പിന്നെ ഒരു മനുഷ്യ ഒരു തൊഴിലാളിയുടെ അതേ ഒരു കൃഷിപ്പണിക്കാരൻ്റെ ഇന്നത്തെ ശമ്പളമെന്നു വെച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറും ആയിരവും അങ്ങനെ ഇപ്പം പിന്നെ ഈ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ നാനൂറ്റൻപത് നാനൂറ് അതായിരുന്നു കൂലി ഇപ്പോൾ ദേ ഇപ്പോൾ കൂടിക്കൂടി വര് ഓരോ വർഷം കൂടുന്തോറും എന്താ കൂലിയുടെ കൂലി കൂടിക്കൂടിക്കൂടിക്കൂടി വരികയാണ് അപ്പം കൂലി കൂടുന്നതിന് അനുസരിച്ച് നമ്മൾ എന്താ ആൾക്കാരെ കിട്ടാതാകുന്നു പിന്നെ ആൾക്കാർക്ക് കൃഷി ചെയ്യാൻ പ എന്താ ചെയ്യാനുള്ള മടി അങ്ങനെ ഒത്തിരിയേറെ തടസ്സങ്ങളൊക്കെ കൃഷി ചെയ്യാൻ ഇപ്പം ഉണ്ട് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വിലപ്പെട്ട എന്തെങ്കിലും നമ്മുടെ നമുക്ക് ഏറ്റവും വലിയ ആവശ്യകതമായ ഒരു സാധനമെന്നു വെച്ചു കഴിഞ്ഞാൽ കൃഷിയാണ് അപ്പം നമ്മളതിന് നല്ല നിർത്താനൊക്കെ സൂക്ഷിക്കുക അപ്പം എന്താ ആർക്കും ആ കൃഷിയോട് താല്പര്യമില്ലായ്മയും അങ്ങനെ പക്ഷെ നല്ല സത്യസന്ധമായ ഒരു പണിക്കാരന് അല്ലെങ്കിൽ ഒരു എന്താ പണി ചെയ്യുന്ന ഒരാളെ കിട്ടാൻ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ നമ്മൾ തന്നെ എല്ലാം നമ്മൾ തന്നെ ഇറങ്ങി തിരിക്കുക എന്ന എന്നത് നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ കൃഷി എന്താ ഒരു ഉപജീവന മാർഗ്ഗം തന്നെയാണ് അതില്ലാണ്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പം കൃഷി ഏറ്റവും വിലപ്പെട്ട